ഇപ്പം ആശുപത്രികൾ കൂടാതെ തന്നെ ഒരുപാട് ചികിത്സ സംവിധാനങ്ങൾ ഉണ്ട് അവയാണ് ആയുർവേദം അല്ലെങ്കിൽ സിദ്ധ ഹോമിയോപ്പതി അങ്ങനെ ഒരുപാട് അതുപോലെ പച്ചില മരുന്നുകൾ അങ്ങനെ ഒരുപാട് സിദ്ധികളും സിദ്ധികളും അതുപോലെ ചികിത്സ സംവിധാനങ്ങളും ഇന്ന് നമ്മുടെ പ്രദേശത്തും അതുപോലെ നമ്മുടെ ഇതര പ്രസ് പ്ര സംസ്ഥാനങ്ങളിലൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ സന്ദർശിക്കുന്ന ഇപ്പോൾ നമ്മൾ ആശുപ ഇപ്പോൾ ഒരുപാട് വയ അപ്പോൾ നമ്മുടെ അസുഖം കൂടിയ കൂടിയ സമയത്തൊക്കെ നമ്മൾ ആശുപത്രികളിലാണ് പോകാറ് പെട്ടെന്ന് തന്നെ പിന്നെ ടാബ്ലെറ്റ് കുടിച്ച് പെട്ടെപെട്ടെന്ന് തന്നെ പാരസെറ്റാമോൾ പനിയാണെങ്കിൽ ജലദോഷം അതൊക്കെ കുടിച്ച് നമ്മുടെ പനി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ പോകുന്നത് എന്നാൽ ചെറിയൊരു കഫകെട്ടോ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു ചെറിയൊരു കഫകെട്ട് പനിയൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഹോമിയോയിൽ കാണിച്ചാൽ അത് പെട്ടെന്ന് മാറും അഥവാ ഹോമിയോ സ്ഥിരമാക്കിയാൽ പിന്നെ അസുഖങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുപറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു പ്രസവം കഴിഞ്ഞാൽ ആയുർവേദത്തിലേക്കാണല്ലോ നമ്മൾ പോകുക ഇപ്പോൾ നമ്മൾ പ്രസവം കഴിഞ്ഞു കിടക്കുന്ന ഒരാളെ നോക്കാൻ ആയുർവേദസിദ്ധി സിദ്ധിയാണല്ലോ ഉപയോഗിക്കാറ് ഇപ്പോൾ ആയുർവേദത്തിൽ എന്താണ് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കുഴമ്പ് തേച്ച് കുളിക്കുക കുഴമ്പ് പുരട്ടിയിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുക അതൊക്കെ ആയുർവേദ പരമായിട്ടുള്ള ചികിത്സയാണല്ലോ ഇപ്പോൾ പിന്നെ അതുപോലെ ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ല മധുരം ഉള്ള മിഠായിപോലെ ഇത് നോക്കി കൊടുക്കാമല്ലോ അപ്പോൾ ആശുപത്രി കൂടാതെ നമ്മൾ ഈ ഒരു ചികിത്സ സംവിധാനങ്ങളെല്ലാം ഇന്ന് താല്പര്യപ്പെടുന്നുണ്ട് ഞാൻ ഹോമിയോപ്പതി ഒക്കെ പതിയിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ കാണിച്ചിട്ടും ഉണ്ട് കുട്ടീൻ്റെയൊക്കെ പെട്ടെന്ന് തന്നെ മാ നമുക്ക് ഈ പാരസെറ്റാമോൾ പോലത്തെ ടാബ്ലെറ്റിനെക്കാളും നല്ലത് ഹോമിയോപ്പതി ആണെന്ന് പറഞ്ഞുകേട്ടിട്ടുണ്ട്